കുട്ടിക്കാലത്ത് രാമായണത്തിലെ നമ്മളുടെ രാമായണത്തിലുള്ള കഥാപാത്രമായ ഹനുമാനെ ഹനുമാൻ മല പൊക്കുന്ന ഒരു കഥാ സന്ദർഭത്തില് ക ചിത്രം വരക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെറിയ ക്ലാസിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഞാനും ചിത്രങ്ങള് വരച്ച് ഹനുമാൻ മലയെടുക്കുന്ന ചിത്രം വരച്ച് അതിനെ പെയിന്റ് ചെയ്ത് ഒക്കെ ഭംഗിയാക്കി കൊടുത്തു അതിന് കുറെ അങ്ങനെ അത് നോക്കുമ്പോൾ പിന്നെ ആണ് ടീച്ചറ് മാരത് ഇതിൻ്റെ ഇത് ചിത്രങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നോക്കുന്ന സമയത്ത് ഹനുമാനൊരു പാത്രത്തില് ലഡു വെച്ച കയ്യില് ലഡു വെച്ച മാതിരിയാണ് തോന്നുന്നത് മലക്ക് പകരം ലഡു പോലെയായിപ്പോയി അങ്ങനെ ആ ഒരു രസകരമായൊരോർമ്മ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ട് എല്ലാവരും പറയും ഹാനുമാൻ്റെ ലഡ്ഡു എന്ന്